വ്യത്യസ്ത തൊഴിലവസരങ്ങൾ തുറന്നു തരുന്നതിലൂടെ സാങ്കേതിക വിദ്യ എങ്ങനെ സഹായിച്ചിട്ടുണ്ടെന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെല്ലാവർക്കും അതേപോലെയാണ് കുട്ടികൾക്കൊക്കെ അതായത് പിന്നെ ഓൺലൈൻ വർക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കൊണ്ട് കുറേ കുടുംബങ്ങളൊക്കെ രക്ഷപ്പെടുന്നുണ്ട് ഇപ്പം ചിലരിപ്പോൾ അതായത് അംഗവൈകല്യം സംഭവിച്ച ആൾക്കാർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും വീട്ടിൽ അപ്പോൾ അവർക്കൊരു ലാപ്പോ ഫോണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരൂകളുണ്ട് ആൾക്കാരുണ്ട് അതിനൊക്കെ സാങ്കേതിക വിദ്യ സഹായിച്ചിരുന്നത് വലിയൊരു സാങ്കേതിക വിദ്യ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഇപ്പോൾ പണ്ടൊക്കെ നമ്മളിങ്ങനെ ഫോണിലൂടെയൊക്കെ ഫോൺ ഫോണിലൂടെയല്ല ബുക്കിലൊക്കെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ കടകളുടെ കണക്കുകൾ അങ്ങനെയൊക്കെ എഴുതുന്നത് ഇപ്പോൾ ഒക്കെ ലാപ്പിൽ ഇപ്പം നമ്മൾ ഒരു ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കണക്കുകളൊക്കെ കറക്ട് ആയിട്ട് വരും അതായത് കറക്ട് കണക്കുകളായിരിക്കും അതിനൊക്കെ സഹായിച്ചിട്ടുണ്ട് പിന്നെ എന്താണെന്നു വച്ചിട്ടുണ്ടെങ്കിൽ സാങ്കേതിക ബിരുദങ്ങളെന്നു വച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടറുമായിട്ടുള്ള കുറേ പഠിക്കുന്നുണ്ട് ഇപ്പോൾ പല ബിരുദങ്ങളുണ്ട് ഇപ്പം അപ്പം സാങ്കേതിക വിദ്യയുടെ കാലം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ഗുണങ്ങളും തന്നിട്ടുണ്ട്